ആ ഹാ ആ പറഞ്ഞോളൂ ആ ഇന്നത്തെ ഫുഡ് കൊള്ളാമായിരുന്നു ഞാൻ ഇതിന് മുമ്പ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് പതിവായിട്ട് ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എങ്കിലും ഞാൻ ഈ റെസ്റ്റോറൻറിൽ നിന്നാണ് ഫുഡ് കഴിക്കാറ് ഇന്നത്തെ ഫുഡ് എന്തായാലും നന്നായിരുന്നു കേട്ടോ നല്ല ഫുഡ് ആയിരുന്നു സാധാരണ ഞാൻ കഴിക്കുമ്പോൾ ഇതിന്റെ കൂടെ പപ്പടം തൈര് ഒക്കെ കിട്ടാറുണ്ടായിരുന്നു ഇന്ന് പക്ഷേ പപ്പടം തൈര് അതൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വെജിറ്റബിൾ മീൽ ആണ് അവിടുന്ന് കഴിക്കാറ് അപ്പോൾ ഇന്ന് പപ്പടവും തൈരും ഉണ്ടായിരുന്നില്ല അപ്പം അതെനിക്കൊരു കുറവായിട്ട് തോന്നിയിരുന്നു ആ ഡിസേട്ട് ഞാനൊരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്തിരുന്നു അത് നല്ലതായിരുന്നു

ആ അതെ അതെ ആ ഫുഡ് വെജിറ്റബിൾസ് ആയാലും അതിന്റെ കൂടെയുള്ള പിക്കിൾസ് ഒക്കെ നന്നായിരുന്നു ചോറ് നല്ലതായിരുന്നു അതുപോലെ സാമ്പാറും അവിയലും എല്ലാ സാധനങ്ങളും നല്ലതായിരുന്നു കേട്ടോ എനിക്ക് ഇന്നത് കഴിച്ചപ്പം നല്ല തൃപ്തിയായിരുന്നു പക്ഷേ ആ ഒരു പപ്പടം തൈരിൻറെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ നി ഇനിയുള്ള അവസരങ്ങളിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ആ പുതിയ മെനു മെനുകൾ ഒക്കെ വരാറുണ്ടോ എല്ലാ ദിവസവും ഡിഫറൻറ് മെനൂസ് ആണോ ഉണ്ടാവുന്നത് അവിടെ ആ ആ ആ ഈ വെജിറ്റബിൾ മീലിന്റെ കൂടെ ഒരു പായസം കൂടെ ആയാൽ നന്നായിരിക്കും കേട്ടോ പായസം സാധാരണ ചില റെസ്റ്റോറൻറ്റിൽ കിട്ടാറുണ്ട് അപ്പോൾ അതും കൂടെ ഉണ്ടായാൽ നല്ലതായിരിക്കും

ആ അതെ അതെ ആ ഓക്കെ അപ്പം ഞാൻ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇനിയും റെസ്റ്റോറൻറ് സന്ദർശിക്കും അപ്പം നിങ്ങളുടെ ഫുഡ് തന്നെ കഴിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ തീർച്ചയായിട്ടും ഇനിയും വരുന്നതായിരിക്കും കേട്ടോ